ഹലോ ഹലോ ആ ഗുഡ് മോണിംഗ് സാർ ഹലോ ആ സാറേ എന്റെ പേര് സിജി ബിജുമോൻന്നാണ് ഞാൻ ഇത്തിത്താനത്തൂന്നാണ് കോട്ടയം ഇത്തിത്താനത്തൂന്നാണ് സംസാരിക്കുന്നത് അപ്പം എന്റെ അക്കോണ്ട് ഡീറ്റൈൽസിനെക്കുറിച്ച് ഒക്കെ ഒന്ന് അറിയാനായിരുന്നു ആ ആ പാസ്ബുക്ക് ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ എനിക്കിപ്പം ട്രാൻസാക്ഷൻ നടന്നിട്ട് ഞാൻ ബാങ്കിൽ വരാതെ എനിക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാനായിട്ടുള്ള പരിപാടികൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ പിന്നെ അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം ആയിരുന്നു കാരണം ആ

ആ പക്ഷേ സാ ഞാൻ ചെയ്യാം സാറേ ആ എ ടി എം കാർഡ്ന്ന് പറയുമ്പോളേയ്ക്ക് ആ നമ്മൾ ഞാനീ കഴിഞ്ഞ ദിവസം എ ടി എം കാർഡിക്കൂടെ പിൻവലിക്കാൻ ശ്രമിച്ചു പക്ഷേ എന്താച്ചാൽ അവിടെ നമ്മൾ എ ടി എം കാർഡ് ഇട്ട് കഴിഞ്ഞപ്പം എന്തോ എനിക്ക് അത് എവിടുത്തെ മിസ്റ്റേക്കാന്ന് അറിഞ്ഞില്ല പക്ഷേ നമ്മുടെ അക്കോണ്ടീന്ന് പൈസ പോയതായിട്ട് ഒരു മെസേജ് വന്നു പക്ഷേ നമുക്ക് ക്യാഷെടുക്കാൻ പറ്റിയില്ല അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അത് ബാങ്കിലൊക്കെ അന്വേഷിച്ചതിന് മറ്റവർ പറഞ്ഞത് അനുസരിച്ച് ഞാൻ പിന്നെ അവിടൊരു വെള്ള പേപ്പറിൽ അപേക്ഷ ഒക്കെ എഴുതി കൊടുത്തു ആ കൊടുത്തെങ്കിൽ നമ്മുടെ അക്കോണ്ട്ലേക്ക് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് ആ പൈസ തിരിച്ച് കയറി വന്നത് അപ്പം അങ്ങനെ ചില ഇഷ്യൂസെക്കെ നമ്മുടെ എ ടി എം കാർഡ് വഴി ഉപയോഗിക്കുമ്പം നമുക്ക് വരുന്നുണ്ട് ഏ ആ ആ പൈസ തിരിച്ച് കിട്ടി

ആ ആ കുഴപ്പം ആ ഇല്ല സാറെ ഓക്കെ ഇടയ്ക്കൊക്കെ വരാം ആ ഓക്കെ വരാം ആ ആ ആ ഞാൻ ഇടയ്ക്ക് വന്ന് പാസ്ബുക്കൊക്കെ പതിപ്പിക്കും കാരണം ഒത്തിരിയായി ട്രാൻസാക്ഷൻക്കന്ന എന്റെ പാസ്ബുക്കൊന്നും പതിപ്പിക്കുന്നില്ല

ആ ആ ഓക്കെ സാറെ ഓക്കെ താങ്ക് യൂ ഓക്കെ ഓക്കെ